ടോം ആൻഡ് ജെറി പൊതുവെ ടിവിയിലും അതേപോലെ ഫോണിലാണെങ്കിലും ടീ വിയിലാണെങ്കിലൊക്കെ ഞാൻ മിസ്സാക്കാതെ കാണാറുള്ള ഒരു ഷോയാണ് നല്ല ഒരു പരിപാടിയാണ് ഒരു കാർട്ടൂണാണത് പൂച്ചയും എലിയും തമ്മിലുള്ള സൗഹൃദപരമായതും അതേപോലെ നല്ല ഫണ്ണിയായിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മുടെ സമയം പോകാൻ വേണ്ടിയിട്ടും നമ്മളത് കാണാറുണ്ട് അതേപോലെ നമ്മുടെ മൂഡ് ആ ഒരു മൂഡ് മൂഡോഫാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ നമുക്കതു വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഷോയാണ് ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളും യുദ്ധങ്ങൾ പറഞ്ഞാൽ സില്ലി കാര്യങ്ങൾക്കായിട്ടുള്ള ചില പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും അങ്ങടും ഇങ്ങടും പാരവെപ്പും അങ്ങനെയുള്ള കുറേ ഇതൊക്കെയാണ് ഇതിലുള്ളത് പൊതുവെ നമുക്ക് കണ്ടു കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് നമുക്ക് സമയം പോകും അതേപോലെ നല്ല ഫണ്ണിയാണ് അങ്ങോട്ടങ്ങോട്ട് അടിയുണ്ടാക്കുക ഇവിടെ ചെയ്യുക ഇവിടെയൊരു കാര്യം ചെയ്യുക അപ്പം അത് പൂച്ചക്കിഷ്ടപ്പെടില്ല ആ പൂച്ച അതിന് പ്രതികരിക്കും അത് എലി അതിനെ പ്രതിരോധിക്കും അങ്ങനെയുള്ള ഫണ്ണി ഫണ്ണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പൊതുവെ നമുക്കിഷ്ടപ്പെടും സമയം പോകാനാണെങ്കിൽ നമുക്ക് ഏതൊരു മൂഡ് ഓഫ് സിറ്റുവേഷനിലും നമുക്ക് കുറച്ച് ചിരിക്കാനും അതേപോലെ കുറച്ച് തമാശയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഷോയാണ് അതുകൊണ്ടു തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോ കൂടിയാണ് ഇത്